നമ്മുടെ നാട്ടിലിപ്പോൾ കല്ല്യാണം എന്നൊക്കെ പറഞ്ഞാൽ പെൺകുട്ടിയെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലോ അല്ലെങ്കിൽ കോളേജിൽ പോകുന്നുണ്ടെങ്കിൽ കോളേജിൻ്റെ ആ പരിസരത്തോ വെച്ച് കണ്ടു പരിചയപ്പെട്ടു പിന്നെ അവരെ കുടുംബത്തിനെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കും ആരാ മകളാണെന്ന് മ ആരാ അവർ കുടുംബം എവിടെയാണ് വീട് എവിടെയാണ് അതൊക്കെ അന്വേഷിച്ച് അവരെ കുടുംബമായിട്ട് നമ്മൾ ബന്ധപ്പെടാൻ നോക്കും ആരൊക്കെ ഉണ്ട് വീട്ടിൽ അച്ഛനെന്തു ചെയ്യുന്നു അമ്മ എന്ത് ചെയ്യുന്നു അച്ഛൻ മുൻപേ എന്ത് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ആരൊക്കെ ഉണ്ട് വീട്ടിൽ കുടുംബം എല്ലാം എവിടെയാണുള്ളത് ഇതൊക്കെ മനസ്സിലാക്കി നാട്ടിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്നിച്ച് കൂട്ട് അവരുടെ വീട്ടിൽ പോകാൻ പറ്റിയ ആളെ നോക്കി അവരെയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് ഒന്നു പോയി അവരുടെ വീടും ചുറ്റുപാടും അവരുടെ ആൾക്കാരുമായി ഒന്ന് ബന്ധപ്പെട്ട് അങ്ങനേയാണെന്ന് തോന്നുന്നു നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവരെ ഒക്കെ മനസ്സിലാകുമല്ലോ ആ കല്ല്യാണം നമുക്ക് കല്ല്യാണം കഴിച്ചാൽ ആകുമോ ആകില്ലേ ഒന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത് ഒന്ന് നോക്കി നോക്കി വരും കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു ദിവസം ഒരു ദിവസം പറഞ്ഞ് നമ്മൾ ആ ദിവസം ഒരു പത്ത് ഇരുപത്തഞ്ച് ആളെയും കൂട്ടി അവരുടെ വീട്ടിൽ പോകും അത് അവരോട് അത് സംസാരിച്ച് അപ്പം ഇന്ന ദിവസം നിങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ വീടോ കാണണം വീട്ട് ആൾക്കാരുമായിട്ട് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മളുടെ വീട് കാണാൻ വേണ്ടി നമ്മളുടെ ചുറ്റുപാട് അറിയാൻ വേണ്ടി അവർ ഫാമിലി അപ്പം നമ്മൾ പറയും നിങ്ങളെത്ര ആൾ വന്നാലും നമുക്കൊരു പ്രശ്നവുമില്ല വന്നോളു അത് എത്രയാണെന്ന് ഏകദേശം നമ്മളൊരു കണക്കു കൂട്ടി പിന്നെ നമ്മൾ കുറച്ച് കുടുംബക്കാർ വീട്ടിൽ വിളിച്ച് വരുത്തിയിട്ട് അവരുമായിട്ട് സംസാരിച്ച് തമാ തമ്മിൽ സംസാരിക്കും അവരുമായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ അവരുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ അവരുടെ വീട്ടിൽ നമ്മൾ പോയി അങ്ങനെ അത് കഴിഞ്ഞ് രണ്ടാമതു തന്നെ ഒരു ദിവസം നിശ്ചയിക്കുമല്ലോ നമ്മൾ ഇന്ന ദിവസത്തേക്കെന്നു പറഞ്ഞിട്ട് ആ ദിവസം എവിടെ വെച്ചു കഴിക്കുന്നത് കൽ അമ്പലത്തിലോ അല്ല ഹോളിലോ എത്ര ആൾ ടോട്ടലുണ്ടാകും അതെല്ലാം കണക്കെടുക്കണമല്ലോ അപ്പുറവും ഇപ്പുറവും രണ്ട് ടീമും പിന്നെ ചിലവിൻ്റെ കാര്യം അതെല്ലാം നമ്മൾ അപ്പം തന്നെ സംസാരിച്ച് തീർക്കും അന്നേരം തന്നെ എല്ലാവരും അതിനേ പറ്റിയിട്ട് ചർച്ച ചെയ്യും അപ്പം എത്ര ചിലവ് വരുന്ന് ഏകദേശം വോ ആൾ എത്രയുണ്ടാകും നിങ്ങളാളെത്ര ഉണ്ടാകും ഞങ്ങളുടെ ആളെത്ര ഉണ്ടാകും കല്ല്യാണം എവിടെ വെച്ചു നടത്തുന്നു അതെല്ലാം ഒരു ചർച്ച ഉണ്ടാകും അന്ന് അതൊക്കെ കഴി കഴിഞ്ഞ് നേരെ ഹോളിലേക്ക് ഒരേ ഹോളിൽ എല്ലാവർക്കും എത്താൻ പറ്റുന്ന ഒരു ഹോൾ എവിടെയെന്നു കണ്ടുപിടിക്കും അതിൽ ഒഴിവുണ്ടെങ്കിൽ ആ ഹോളിൾ തന്നെ എല്ലാവർക്കും എത്തണ്ടേ ഒരു പരിപാടി ആക്കിയിട്ട് വെക്കും കല്ല്യാണ ചിലവ് രണ്ടു പേരും കഴിക്കുന്നുണ്ടോ പിന്നെ സ്വ സ്വർണ്ണം നിങ്ങളെത്ര കുട്ടിക്ക് ഇടും അത് എല്ലാം എല്ലാ ചർച്ച അന്ന് കഴിയും നിങ്ങളെത്ര സ്വർണ്ണ ഇടും അതെല്ലാം ചോദിക്കും അപ്പോൾ അപ്പുറവും ഇപ്പുറവും പിന്നെ കല്ല്യാണ ചിലവെങ്ങനെ അങ്ങനെ എല്ലാ അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കുക അന്നു തന്നെ ആ ഹോളിലേക്ക് എല്ലാവരും കൂടിയിട്ട് തീരുമാനിച്ച് ആ ഹോളിൽ തന്നെ നടത്തുകയെന്നല്ല തീരുമാനമായി കല്ല്യാണം ആഡംബരമായിട്ട് കഴിക്കും കഴിച്ചു കഴിഞ്ഞ് അവർ അവരുടെ വീട്ടിൽ പെണ്ണിനെയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് പോകും പുരുഷൻ്റെ വീട്ടിലേക്ക് പോകും പിന്നെ അത് കഴിഞ്ഞ് അന്ന് ഒരു ദിവസം പെണ്ണിൻ്റെ വീട്ടിൽ വിരുന്ന് എന്നു പറഞ്ഞൊരു പരിപാടി ഉണ്ട് അവരെ ഇങ്ങോട്ട് വരുത്തും ഇങ്ങോട്ട് വരാനാക്കും വരാനാക്കി അവർ കുറച്ച് കുറച്ചാളുണ്ടാകും അതു പറയും ഇത്ര ആളെന്ന് അവർ പറയും അന്നേരം തന്നെ ഞങ്ങളിന്ന ദിവസം വരും അവരെ കൂട്ടി ഇവിടെ വന്നു ചെറിയൊരു പാർട്ടി എല്ലാം നടത്തി അന്നവർ പോയി കഴിഞ്ഞാൽ അവർ വിളിക്കും നമ്മളെ അങ്ങോട്ട് ചെക്കൻ്റെ വീട്ടിലേക്ക് അന്നൊരു പോക്ക് ഇന്നേ ദിവസം ഞങ്ങൾ വരാമെന്നു പറഞ്ഞ് കുറച്ചാൾ നമ്മൾ കൂട്ടിയിട്ട് നമ്മളും അവിടെ പോകും അവരുടെയിടയിൽ പോലത്തെ പരിപാടി ഇതിനേക്കാളും വ്യത്യാസമായിട്ടായിരിക്കും അവിടെ ഉണ്ടാകുന്നത് ഇതുപോലെ തന്നെ ആയിരിക്കില്ല ഇതിനേക്കാളും കുറച്ച് മാറ്റമുണ്ടാകും അവിടെ അവിടെ നിന്ന് അതും കഴിഞ്ഞ് തിരിച്ചു വരും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ട് ഭാഗത്തെ ഏത് പരിപാടി കഴിഞ്ഞു പിന്നെ അവർക്ക് ഇഷ്ടം തോന്നുമ്പം ഇങ്ങോട്ട് വരുന്ന് അതേമാരിക്ക് ചെക്കനും പെണ്ണും ഇങ്ങോട്ട് വരും അതുമാരി തന്നെ അപ്പോൾ തോന്നുന്ന ടൈമിന് നമുക്കങ്ങോട്ടും പോകാം അവർക്ക് ഇങ്ങോട്ട് ഒരേ സമയ് ഒരേ സമയത്തങ്ങോട്ടും ഇങ്ങോട്ടും പോകാം അതിനൊരു പ്രശ്നവുമില്ല ദൂര സ്ഥലത്തായിരുന്നെങ്കിൽ കല്ല്യാണം കഴിച്ച പെണ്ണിനെയും കൂട്ടിയിട്ട് ദൂരെ സ്ഥലം എവിടെയെങ്കിലും ഉള്ളതെങ്കിൽ അവർ പെണ്ണിനെയും കൂട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ വന്നിട്ടാവണം കാണണമെങ്കിൽ ഇപ്പോഴെല്ലാം കല്യാണം കഴിയുന്നതെങ്ങനെയാണ് വെച്ചെങ്കിൽ ഓ ഓന് കാനഡയിലും ഗൾഫിലും അവിടെ ഇവിടെ എല്ലാ ആയിരിക്കും ജോലി അപ്പോൾ കല്ല്യാണം കഴിഞ്ഞപാട് ഓൻ ഓളെയും കൂട്ടി കാരണം ലീവ് കുറവായിരിക്കും കൂട്ടിയിട്ട് ഉടനെ സ്ഥലം കാലിയാക്കും പിന്നവർ ഒരു കൊല്ലമോ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിയുമ്പോൾ വരും പ്രസവിക്കാൻ വേണ്ടിയിട്ട് അപ്പം പ്രസവിച്ച് കഴിഞ്ഞാലും ഒരു രണ്ട് മാസം ആകുമ്പം അവർ വീണ്ടും പോയില്ലേ ഇതാണിപ്പോഴത്തെ ചട എല്ലാത്തിക്കിലും നടക്കുന്നത് പിന്നെ നാട്ടിൽ ഉദ്ദേസ ഉദ്യോഗമുള്ളവർ അധികവും നാട്ടിൽ തന്നെ എല്ലാടെയും ഇവിടെ തന്നെ കൂട്ടിയിട്ട് നാട്ടിൽ തന്നെ ഉണ്ടാകും ആ ഗവൺമെൻറ് ജോലിയിലുള്ളവരെല്ലാം ഇവിടെ ഇവിടെ തന്നെ നാട്ടിൽ തന്നെ ഓൾക്കു രണ്ടാൾക്കും ജോലി ഉണ്ടേ പിന്നെ പ്രശ്നമില്ല ഭാര്യയുടെ അമ്മയോ ഭർത്താവിൻ്റമ്മയോ ആരെങ്കിലും ഉണ്ടാകും കുട്ടികളെ നോക്കാൻ രണ്ടാളും ജോലിക്കു പോകുന്നവരെങ്കിൽ എങ്ങനെയാന്ന് കേട്ടപ്പോൾ പൊതുവേ നടക്കുന്നത് ഉൾപ്രദേശത്തെങ്കിലും സുഖമാണ് സംഗതി കുറച്ച് ടൗണായെങ്കിൽ ടൗൺ ഏരിയ ഏതെങ്കിൽ ഇതിനേക്കാളും സുഖം ഉൾപ്രദേശമാന്ന് അവിടെ കൂടുതലാളുണ്ടാകും വീട്ടിൽ ബന്ധുക്കളെല്ലാം വന്നു കൂടുമ്പോൾ ഒരു ഇവർ ആഘോഷമായിട്ടുണ്ടാകും എപ്പോഴും അങ്ങനെയാണ്